ഹലോ പറഞ്ഞോളു അതെ അതെ പറഞ്ഞോളു ചേട്ടാ ആണോ ആണോ നിങ്ങളിതിനു മുന്നേ ഒരുവട്ടം കൊണ്ടുവന്നിട്ടില്ലായിരുന്നോ ഒരുമാറ്റവും അ പറഞ്ഞോളൂ ആണോ ആണോ ഒരുമാറ്റവും വരുന്നില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്

അ ഓക്കെ നമ്മളിതിന് ഒരു മൂന്നുകൂട്ടം ഗുളിക ഒരു ഓയിൻമെൻറ്റൊക്കെയല്ലേ തന്നിട്ടുണ്ടായിരുന്നത് അത് നിങ്ങൾ എങ്ങനെയായിരുന്നു അപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അ ആ ആ ഓക്കെ ഓക്കെ ഗുളിക കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത് ആ ഓക്കെ ഓക്കെ കറക്ട് രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ മാറേണ്ടതാണ് നമുക്ക് എന്താണെന്ന് നോക്കാം നിങ്ങൾ ഒരുദിവസം ഒന്നും കൂടി കൊണ്ടവരാമോ അ കുഴപ്പമില്ല നമ്മളിവിടെ എല്ലാ ടൈംമും ഓപ്പണാണ് സൺഡേ മാത്രമേ ലീവുള്ളു നിങ്ങൾക്ക് ഏത് ടൈംമിലും കൊണ്ടുവരാം നമ്മൾ ഇവിടെ ഡോക്ടർമാരും നഴ്സും അസ്സിസ്റ്റൻറ്റുമാരൊക്കെ ഉണ്ടാവും ആയിക്കോട്ടെ സാ നിങ്ങളുടെ ലീവിൻ്റെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾ പോന്നുകൊള്ളു കുഴപ്പമില്ല അ കുഴപ്പമില്ല നിങ്ങൾ കൊണ്ടുവന്നോളു നിങ്ങൾ വന്നിട്ട് കുറയാത്ത സംഭവാണല്ലോ നമ്മ വരുന്ന തന്ന മരുന്നുകൾ ഒന്നും കൂടി അ ഓക്കെ ഓക്കെ നിങ്ങൾ വരുമ്പോൾ ആദ്യം തന്ന മരുന്നും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവന്നോളു നമുക്ക് അത് ഒന്നുകൂടി ചെക്ക് ചെയ്യാം നമുക്ക് എന്താണ് കാരണം അത് ഭയങ്കരവായിട്ട് രോമം പൊഴിഞ്ഞു പോകുന്നുണ്ടോ മുറിവുപോലെ ആയിട്ടുണ്ടോ അ ഓക്കെ ഓക്കെ നമുക്ക് എന്താന്ന് വന്നിട്ട് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് തരാൻ കഴിവുള്ള നമ്മൾ ആദ്യം കണ്ടത് അനുസരിച്ചാണ് നമ്മൾ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നത് അത് കഴിച്ചിട്ടും കുറയുന്നില്ലെങ്കിൽ നമുക്കത് വേണ്ടതായ ചെക്കപ്പ് നൽകി നമുക്ക് അടുത്ത മരുന്ന് നമുക്ക് തരാം അ ഓക്കെ ഓക്കെ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ പൊടിയിലും മണ്ണിലൊന്നും കളിക്കാത്ത രീതിയിൽ അ ശ്രദ്ധിച്ച് നിങ്ങൾ സമയം കിട്ടുമ്പോൾ വന്നുകൊള്ളൂ അ ഓക്കെ ഓക്കെ താങ്ക്യൂ